ഫോട്ടോഗ്രാഫി ഒരു എന്താ ഹോബി ആയിട്ടെടുക്കാം കാരണം എന്താ എൻ്റെ ബ്രദറ് എൻ്റെ സഹോദരൻ നന്നായിട്ട് ഫോട്ടോ എടുക്കുമായിരുന്നു അപ്പോൾ അത് കണ്ട് ഇൻസ്പെയറായിട്ടാണ് ഞാൻ ഫോട്ടോസ് കുഞ്ഞിലേ തൊട്ടേ എടുക്കാൻ തുടങ്ങിയതും അങ്ങനെ എടുത്തെടുത്ത് വന്നപ്പോഴത്തേക്കും കുറേ പേരൊക്കെ നല്ലതാണെന്ന് പറയാൻ തുടങ്ങി ഞാൻ ഇപ്പം എൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തപ്പോഴാണെങ്കിലും വളരെ നല്ല റെസ്പോൻസ് എനിക്കിതുവരെ കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണ് എനിക്ക് അങ്ങനെ ഒരു പാഷനുണ്ടാകുന്നതും എനിക്ക് അതിൽ എന്തോ കഴിവുണ്ടെന്നൊക്കെ തോന്നുന്നതും